ഞാൻ ഫ്രിഡ്ജ് ആണ് വാങ്ങിച്ചത് ഫ്രിഡ്ജ് നേരെ കൂൾ ആകുന്നില്ല അതിൻ്റെ ഗ്ലാസും ഉള്ളിലത്തെ ഗ്ലാസ്സെല്ലാം ഭയങ്കര ലോ ക്വാളിറ്റി ആണ് കമ്പ്രെസറിന് ഭയങ്കര മൂളിച്ച കൂടുതലാണ് കൂൾ ഐസ് വേഗം ഫ്രീസ് ആകുക വളരെ ഇത് വിലയും കൂടുതലാണ്